ആ ആ പിന്നെ എനിക്കൊരു വീട് വേണ്ടിയിരുന്നു

നല്ല ഏരിയ ആണല്ലേ പിന്നെ എനിക്ക് വീട്

ഓക്കെ പിന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ് വെള്ളം മി മലിനമാണോ അതോ വെള്ളം അപ്പം വെള്ളം വെള്ളത്തിന് കിട്ടുമോ വെള്ളം കിട്ടുന്ന സ്ഥലമാണോ

അപ്പം വെള്ളം സുലഭമായി കിട്ടുമല്ലേ അവിടെ പിന്നെ വേറെ മറ്റ് അവിടുത്തെ മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ വീട് എടുക്കാൻ പറ്റിയ സാഹചര്യം തന്നെയാണോ വേറെ എന്തേലും അവിടുത്തെ ട്രാൻസ്പോർട്ടൊക്കെ എങ്ങനെയാണ് അവിടുത്തേത്

സ്കൂള് സ്കൂളുകളോ സ്കൂള് മദ്രസ ഒക്കെ

ആ പിന്നെ നമ്മൾ ഈ സ്പോട്ട് വരുന്ന സ്ഥലം ഇത് ഇതിന് അടുത്ത് വീടുകളൊക്കെ ഉണ്ടോ ഇതിൻ്റെ അടുത്ത് വീടുകളൊക്കെ ഉണ്ടോ ഓക്കെ ഞാൻ ഞാൻ വന്നിട്ട് ഒന്ന് കണ്ടിട്ട് ഉറപ്പ് പറയാം കേട്ടോ ഓക്കെ ആ ആ ഓക്കെ ശരി എന്നാൽ ആയിക്കോട്ടെ ശരി